കുട്ടിക്കാലത്ത് ഞാൻ കുറേ കളികൾ കളിച്ചിട്ടുണ്ട് അയിമ്പയി സാറ്റ് എല്ലൊടി സ്റ്റെപ്പ് അങ്ങനെ കുറേ കളികളുണ്ട് അയിമ്പയി സാറ്റ് എന്നു പറഞ്ഞാല് ഭയങ്കര രസമുള്ള കളിയാണ് നമ്മള് ഒരാള് പോയിക്കാണ്ട് ഒരു പോസ്റ്റുമ്മല് കണ്ണു മൂടികണ്ട് ഒരു അൻപത് വരെ എണ്ണുക അപ്പോൾ നമ്മളുടെ ഒപ്പമുള്ള ആൾക്കാര് കുറേ സ്ഥലത്ത് പോയിക്കാണ്ട് ഒളിച്ചുനില്ക്കും നമ്മള് നേരെ പോയിട്ട് ഓലെ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മള് എണ്ണിയിരുന്ന സ്ഥലത്ത് പോയിക്കാണ്ട് സാറ്റ് എന്നു പറഞ്ഞ് സാറ്റടിക്കണം അപ്പോള് ഫസ്റ്റടിച്ച ആളാണ് ഫസ്റ്റ് നമ്മള് കണ്ടുപിടിച്ച സാറ്റടിച്ച ആളാണ് പിന്നെ അടുത്തതായിക്കാള് പോസ്റ്റുമാ വെച്ച് കണ്ണുപൊത്തി എണ്ണണ്ടയാള് പിന്നെ ഞാൻ കളിച്ചിരുന്ന വേറൊരു കളിയാണ് എല്ലോയി സ്റ്റെപ്പ് എന്നു പറഞ്ഞിറ്റൊരു കളി ഇതും അതുപോലെ തന്നെ ഒരു കളിയാണ് ഒരാള് മുമ്പോട്ട് തിരിഞ്ഞ് എല്ലോടി സ്റ്റെപ്പ് എന്നു പറയണം അപ്പോള് ബാക്കിലുള്ള ഓരെ ബാക്കില് ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും ഓര് ചാടികാണ്ട് ചാടി മുമ്പേ വന്ന് മുമ്പിലോട്ട് വന്ന് വന്ന് അനങ്ങാതെ നില്ക്കണം ഈ എല്ലോടി സ്റ്റെപ്പ് പറഞ്ഞാള് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോള് നമ്മള് ബാക്കിയുള്ള ആൾക്കാര് അനങ്ങാതെ നില്ക്കണം അഥവാ അനങ്ങിയാലോ നമ്മളുടെ പല്ല് കണ്ടാലോ നമ്മള് ഔട്ടാകും എന്നിട്ട് ഔട്ടായ ആള് പിന്നെ അടുത്തതായി കണ്ട് ഇതേപോലെ മുമ്പിലിന്ന് പറയണ്ടി വരും ഇതേപോലെ വേറെ കളിയാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണയായി കളിച്ച് വരുന്ന ഒരു കളിയാണ് ഒരു സ്റ്റമ്പും ബാറ്റും പന്തുണ്ടാവും ഒരാള് ബോളെടുത്തെറിയും ബാറ്റ് ചെയ്യുന്നയാള് പന്തടിച്ച് തെറിപ്പിച്ചണം എന്നിട്ട് റൺസെടുക്കണം അതാണീ കളീൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ പന്ത് പൊന്തിച്ചടിച്ച് നിലത്ത് പിച്ച് ചെയ്യാതെ കൈകൊണ്ട് പിടിച്ചാല് ഔട്ടാകും ഇതാണ് ആ ഒരു കളി